വസ്ത്രം കഴുകാൻ വേണ്ടി വെള്ളം ഞങ്ങൾക്ക് വളരെ കുറവായിട്ടുള്ള ഒര്ഉ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് വെള്ളം ഇപ്പോൾ വളരെ കുറവാണ് വെ ലഭ്യത ഇല്ല മഴക്കാലം വരുമ്പോൾ മാത്രം ആണ് ഞങ്ങൾക്ക് വെള്ളം ഉള്ളത് മഴക്കാ വേനലാവുമ്പം ഞങ്ങൾ തുണി കഴുകിയിട്ട് മുറ്റത്തിടും മുറ്റത്തിട്ട് ഉണക്കും മഴക്കാലം ആവുമ്പോൾ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഉള്ളിലും വീ വീടിൻറെ ഉള്ളിലും വീടിന്റെ പുറത്ത് ഇറയിലൊക്കെ അയയിൽ കെട്ടി അവിടെ ബുദ്ധിമുട്ടിയിട്ടാണ് ഉണക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് വെള്ളത്തിന് വളരേ ക്ഷാമം ആയതുകൊണ്ടും വെള്ളത്തിന്റെ ലഭ്യത വളരെ കുറവായതുകൊണ്ടും ഞങ്ങൾ വളരെ കുറച്ച് വെള്ളം മാത്രം എടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുത്തിട്ടേ തുണിയൊക്കെ തിരുമ്പാറുള്ളൂ തുണി തുണികൾ ഒക്കെ എന്താണ് ഉണങ്ങി കിട്ടണമെങ്കിലും മ മഴക്കാലത്ത് ആകുമ്പം ഭയങ്കര പാടാണ് പിന്നെ വേനൽക്കാലം ആകുമ്പം ഞങ്ങൾക്ക് വെള്ളത്തിനും ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത രീതിയാണ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ വെള്ളം അധികം വേനൽക്കാലം ആവുമ്പോൾ ഞങ്ങൾക്ക് അധികം വെള്ളം എടുത്തിട്ട് തുണി തിരുമ്പാനോ കുളിക്കാനോ ഒന്നിനും വെള്ളം ഇല്ല ഞങ്ങൾ എല്ലാവരെയും കിണറ്റിലും പോയിട്ട് ഇരന്ന് വെള്ളം വാങ്ങി കൊണ്ടുവന്നിട്ട് തിരുമ്പും ഞങ്ങൾ പിന്നെ തുണി ഒക്കെ കഴുകിയിട്ട് അവിടെ ഇവിടെയൊക്കെ വിരിച്ചിട്ടിട്ടാണ് ഉണക്കുന്നത് അതുപോലെ തന്നെ മഞ്ഞുകാലം വേനൽക്കാലം അവിടെ ഒക്കെ ആവുമ്പോൾ വെള്ളം വെള്ളം ഉണ്ടാവും പക്ഷേ അത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം തുണികൾ ഒന്നും ഉണങ്ങിക്കിട്ടില്ല തുണികൾ ഉണങ്ങി കിട്ടാത്തപ്പം തന്നെ ബുദ്ധിമുട്ടാണ് വെള്ളം ഇല്ലാത്തത് പോലെ തന്നെയാണ് വെള്ളം മഴക്കാലം ആയാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വേനൽക്കാലം ആയാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് തുണികളൊന്നും പെട്ടെന്ന് ഉണങ്ങിക്കിട്ടില്ല